ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്ടിനെപ്പറ്റി ഒരു ഫസ്റ്റ് റീവ്യൂ പറയാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഒരു വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള ഒരു ഹോം തീയറ്ററിനെ പറ്റിയിട്ടാണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട് കാരണം അത്രമാത്രം വീട്ടിൽ ചോദിച്ച് പറഞ്ഞു വാങ്ങിപ്പിച്ചൊരു ഹോം തീയറ്ററാണത് ആ ഹോം തീയറ്ററിനെപ്പറ്റിയിട്ട് ഞാൻ കുറേ പഠിച്ചിട്ടാണ് ആ ഒരു ഹോം തീയറ്റർ വാങ്ങിയത് കാരണം ആദ്യമായിട്ട് ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീട്ടിലിരുന്നൊരു സിനിമ കണ്ടു ആ സിനിമ കണ്ടിട്ടാണ് ആ സിനിമ കാണുമ്പോൾ അതിൻ്റേതിൽ കിട്ടിയ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് അത് ഹോം തീയറ്റർ കാരണമാണെന്നാണ് എനിക്ക് അപ്പോൾ മനസ്സിലായത് അപ്പം അന്നുതന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അമ്മേ വീട്ടിലൊരു ഹോം തീയറ്റർ വാങ്ങണം ആദ്യമൊക്ക ഒരു ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു എന്നാൽ വാങ്ങിക്കോ കുഴപ്പം ഇല്ല ഏകദേശം ഒരു തേർട്ടി ഫൈവ് തൗസൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോം തീയറ്ററിന് ആ ഹോം തീയറ്ററ് സോണിയുടെ ബ്രാൻ്റിൻ്റെ എസ് ടി എസ് ഫൈവ് സീറോ സീറോ ആർ എഫ് എന്നു പറഞ്ഞ മോഡലായിരുന്നു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉള്ളത് ആ ഡോൾബി പവേർഡ് ടൈപ്പ് ഹോം തീയറ്ററായിരുന്നു ആ ഹോം തീയറ്ററിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ ഓഡിയോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ കാരണം നമുക്ക് ആ റൂമിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റും ഒരു സ്പേഷ്യസ് ഓഡിയോ പോലെ നമുക്ക് ഒരു നല്ല ഫീലിങ്ങ് കിട്ടും ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് വൺ കണക്റ്റിവിറ്റി ഉള്ള കാരണം അത് നമുക്കേത് അത്യാവിശ്യം ഒരു ഫൈവ് മീറ്റേർസ് ടു ടെൻ മീറ്റർസ് അതോ റ്റിൽ ട്വൻ്റി മീറ്റേർസ് വരെ നമുക്ക് പോയാലും അത്യാവശ്യം നല്ല കണക്റ്റിവിറ്റി കിട്ടും സൗണ്ട് ഔട്ട്പുട്ട് ഒരു തൗസൻ്റ് വാട്ട്സ് ആയതുകാരണം തന്നെ അധികം പവർ കൺസപ്ഷനും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്ന അതിൻ്റെ സബ് വൂഫറും കാര്യങ്ങളൊക്കെ വരുന്ന എബൌട്ട് നയൺ കിലോഗ്രാമിൻ്റെ ടു ഫോർട്ടി വാട്ട്സിൻ്റെ സബ് വൂഫറാണ് അതിൻ്റെ ബ്ലൂടൂത്ത് പ്രൊഫൈൽ എന്നു പറയുമ്പോൾ എൽഡാക്ക് സപ്പോർട്ട് ചെയ്യില്ല ബട്ട് എ എ സി ആൻ്റ് എസ് ബി സി ടൈപ്പ് സപ്പോർട്ടിങ്ങാണ് എച്ച് ഡി എം ഐ ഔട്ട്പുട്ടും തരുന്നുണ്ട് ഏകദേശം ഒരു കൊല്ലത്തിൽ ആനുവൽ ആനുവൽ പവർ ഔട്ട്പുട്ട് കൺസപ്ഷൻ പറയണത് സീറോ പോയിൻ്റ് ഫൈവ് വാട്ട്സാണ് അതൊരു ഇപ്പം ഞാൻ വാങ്ങിയത് ഒരു സൗണ്ട് പാർട്ട് ടൈപ്പ് ഹോം തീയറ്റരാണ് അത്യാവിശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യൂസെർ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത് ഇപ്പോൾ വാങ്ങിയിട്ടൊരു ഏകദേശം മൂന്നു നാല് കൊല്ലം ആയി വാങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല സോണിയുടെ ആയ കാരണം തന്നെ അത്യാവശ്യം നല്ല ബ്രാൻ്റ് ക്വാളിറ്റിയും കൂടി ആയിരുന്നു പിന്നെ യൂസർ യൂസർ എക്സ്പീരിയൻസ് എന്നു പറഞ്ഞാൽ സൗണ്ട് എക്സ്പീരിയൻസ് എന്നു പറയുമ്പോൾ എക്സ്ട്രീമിലി ട്രമെൻഡസ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ സൗണ്ട് സൗണ്ട് ക്വാളിറ്റി വാസ് ഫാർ ബെറ്റർ ദാൻ നമ്മൾ ഫാർ ബെറ്റർ എന്നല്ല ആക്ചവലി കമ്പെർ തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി അയിരുന്നു ആ നമുക്ക് അതിനകത്ത് തന്നെ ഒരു മൂന്ന് നാല് മോഡുകൾ വരുന്നുണ്ട് ലൈക്ക് ഈക്വലൈസർ ബാസ്സ് അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് സൗണ്ട് മോഡ്സ് പിന്നെ അത് മാത്രമല്ല ബേസ് എന്നു പറയുമ്പോൾ അതിൻ്റെ ബേസും വളരെ വളരെ എക്സ്ട്രീമ് ഒരൂ കംഫേർട്ട് വരുന്ന ടൈപ്പ് ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു അപ്പം ഇത്ര മാത്രമാണ് എനിക്ക് ഹോം തീയറ്ററിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള ഹോം തീയറ്ററായിരുന്നു